ആണല്ലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ

എന്തുണ്ട് വിശേഷം ഏ കുറച്ച് കുഴപ്പമില്ല പറഞ്ഞോളൂ അവളുടെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്

ആണോ ആ ഹാ

ആ അത് പക്ഷേ പഠിത്തത്തിൽ അങ്ങനെ പുറകോട്ടില്ല അവൾ ഞാൻ അറിഞ്ഞതിൽ ഇപ്പം ലാസ്റ്റ് വീക്കാണ് ടീച്ചർനേയൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പം അത് ആ അങ്ങനെ ആ

ആ ഹാ ഹാ ആ

ആ ഹാ

ആ ആ ആ നമ്മൾ കൊടുക്കും ആ നമ്മൾ കൊടുക്കാറുണ്ട് നമുക്ക് ഇങ്ങനെ ചിലർക്ക് നമുക്ക് ക്ലാസ് ഫുള്ളും കൊടുക്കും ചിലർക്ക് നീഡഡാണെങ്കിൽ അവരെ പേരൻസ് നമ്മളോട് പറയുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് കൊടുക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ മീൻസ് മന്ത്ലി ആയിട്ടും പിന്നെ ഇയർലി വൈസിത് നമ്മൾ ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് കൊടുക്കും അതിനകത്ത് നമുക്ക് ഗോൾ സെറ്റിംഗും മോട്ടിവേഷനും പിന്നെ നൈപുണ്യ പരിശീലനവും അങ്ങനെ വല്ല കുറച്ച് ജീവിതത്തിന് വേണ്ട കുറെ സ്കിൽസ്കളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവരെ പഠിപ്പിക്കാറുണ്ട് അതിൽ നിന്ന് ആ അപ്പം അത് ഈ നിന്നവർ അവരുടെ ജീവിതത്തിൻ്റെ സെക്കൻ കരിയേസെന്താ എന്താണെന്ന് ഉള്ളതവർ കണ്ട്പിടിക്കാറും ഉണ്ട് അങ്ങനെ നമ്മുടെ ഒത്തിരി സ്റ്റുഡൻസു അതിൽ ആ ക്ലാസ് കൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടായിട്ടുണ്ട് പിന്നെ പേസണലി ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ പേസ്ണൽ കൗൺസിലിംഗും കൊടുക്കും കൊടുക്കും അപ്പം ഇതിലൂടെ ആ അതവർക്ക്

പ്ലസ് വണ്ണവസാനം ഇപ്പം നമുക്ക് വേണം വേണമെന്ന് ഒരു അപ്പം ഇപ്പം മിസ്സ് ഇപ്പം മേം മാത്രമല്ലേ ചോദിച്ചുള്ളൂ കൂട്ടത്തിൽ ഒരു അഞ്ചോ ആറോ പേരൊക്കെ ചോദിച്ചതാണ് നമുക്ക് അല്ലെങ്കിലും ഒര് പത്ത് കുട്ടികളില്ലെങ്കിൽ നമുക്ക് ക്ലാസെടുത്ത് കൊടുക്കുന്നതിൽ വേസ്റ്റാണ് നമ്മൾ ഒരാളെ പുറത്തെന്ന് ഹയർ ചെയ്യണം ആ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാഫ് മീറ്റിംഗ് കൂടിയപ്പം നമ്മൾ ഇതിനെ കുറിച്ചൊരു ഡിസ്കഷനുണ്ടായിരുന്നു ബിക്കോസിപ്പം ഒത്തിരി കുട്ടികൾ ഇങ്ങനെ ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിലയിലാണ് എന്ന് വെച്ചാൽ നമ്മൾ വേൾഡിങ്ങനെ വളരും തോറും കുട്ടികളുടെ വളർച്ചകളും കുറഞ്ഞോണ്ട് വരുവാണ് വെച്ച് ബാക്കി എക്സ്ട്രാ കാര്യങ്ങളെല്ലാം വളർന്നു അല്ലാതെ അവരുടെ ഒരു മെൻ്റൽ പേസ്ണാലിറ്റി ലെവലിൽ അവർക്കൊരു മാറ്റം വരുന്നില്ല അപ്പം അതും അല്ലാതെ മദ്യവും മയക്ക് മരുന്നും അങ്ങനെ ലഹരി കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന അവരെ ഒരു പോസറ്റീവായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ ഒരു സെക്കൻസെപ്പ ജീവിതത്തിൽ നല്ലൊരു പുതിയ ഫ്യൂച്ചറവർക്കുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്ന ഒരു കരി ഗൈഡൻസ് ക്ലാസൊക്ക പിള്ളേർക്ക് കണ്ടെക്റ്റ് ചെയ്താലോ എന്ന് ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗി തീരുമാനിച്ചത് ഉള്ളൂ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ കുട്ടികളെ സഹകരണം വേണം ആ അ

അല്ല അവർക്ക് നിലവിൽ എന്തിനോടാണ് കൂടുതലും ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നത് ഓക്കെ ഹാ ഹാ

ഓക്കെ ആ ആ ടെൻഷനടിക്കണ്ട ടെൻഷനടിക്കണ്ട നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടതുള്ള ഇത് വെച്ച് തീരുമാനിക്കാം കുഴപ്പമില്ല നമ്മൾ ഈ വർഷം കൊടുക്കാം ആ ആ അമ്മ ടെൻഷടിക്കണ്ട ആ നമുക്ക് ക്ലാസ് വെയ്സ് കൊടുക്കാമെന്നേ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ആ ഹാ ശരി ശരി

ആ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ താങ്ക് യൂ താങ്ക് യൂ ശരി ശരി ആ